ഞങ്ങളുടെ നാട്ടിൻപുറത്ത് ആരംഭിച്ച് വിജയിച്ച ഒരു സംരംഭം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അത് ഒരു ചേട്ടൻ്റെ കടയാണ് ആ ചേട്ടൻ പാവപ്പെട്ട ആളായിരുന്നു അവിടെ ഭയങ്കര ദാരിദ്ര്യമായിരുന്നു അയാൾക്ക് വലിയ വിദ്യാഭ്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള അയാൾക്ക് ആ വരുമാന മാർഗം ഇല്ലായിരുന്നു അയാൾ കുറേ കഷ്ടപ്പെട്ട് ജീവിച്ചു ദരിദ്രപൂർണമായിട്ടുള്ള അയാളുടെ ജീവിതത്തിൽ അയാൾ കുറേ കഷ്ടപ്പെട്ടു അയാൾക്ക് ടൈലറിങ്ങ് വശമുണ്ടായിരുന്നു അയാൾ ടൈലറിങ്ങ് ചെയ്ത് കുറച്ചൊക്കെ സമ്പാദിച്ചെങ്കിലും അയാളുടെ ദാരിദ്ര്യം അയാളെ വിട്ടുമാറിയില്ല അവസാനം അയാൾ ലോൺ എടുത്ത് കുറച്ച് സ്ഥലം വാങ്ങുകയും ഒരു കട ഇടുകയും ചെയ്തു അങ്ങനെ അയാൾ ടൈലറിങ്ങ് വികസിപ്പിച്ചു കൂടുതലായും റെഡിമേഡ് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാൻ തുടങ്ങി റെഡിമേഡ് ഉൽപ്പന്നങ്ങൾ അയാൾ വാങ്ങിച്ച് വിൽക്കുന്നതിലൂടെ അയാൾക്ക് ലാഭം കിട്ടാൻ തുടങ്ങി അയാളുടെ ക്വാളിറ്റി പ്രോഡക്റ്റ്സ് അയാളുടെ കടയ്ക്ക് ഗുണമേന്മയേകി പേര് കേട്ടു ശ്രദ്ധിക്കപ്പെട്ടു അങ്ങനെ അയാളുടെ വസ്ത്രങ്ങൾ വിപണിയിൽ സുലഭമായി അയാളുടെ വസ്ത്രങ്ങൾക്ക് ആളുകൾ കൂടി കൊടുക്കുന്ന വിലയ്ക്ക് ക്വാളിറ്റി ഉള്ള വസ്ത്രങ്ങൾ നൽകാൻ അയാൾ ശ്രമിച്ചു അതാണ് അയാളുടെ വിജയത്തിൻ്റെ പിൻ രഹസ്യം അയാൾക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായതുകൊണ്ട് തന്നെ അയാളുടെ കടയിലേക്ക് ആളുകൾ ഇരച്ച് കയറി അയാളുടെ ക്വാളിറ്റി വസ്ത്രങ്ങൾ വാങ്ങിക്കാൻ അയാളുടെ കടയിലേക്ക് ആളുകൾ തിക്കും തിരക്കും കൂട്ടി അങ്ങനെ ആ സംരഭം വിജയിച്ചു